ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് മലബാറുകാർക്ക് പ്രത്യേകിച്ച് ചോദിക്കണ്ട ഒരു കാര്യവുമില്ലാത്ത ഒരു സാധനമാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ ഒരു വിധപ്പെട്ട എല്ലാ ബിരിയാണികളും ബിരിയാണിയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ബിരിയാണി അതിലൊക്കെ സാലഡ് ചമ്മന്തി അച്ചാറ് എന്നിവയൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക അതു കഴിഞ്ഞാൽ പിന്നെ ബീഫ് ബിരിയാണി അത് കഴിഞ്ഞിട്ട് പിന്നെ മട്ടൻ ബിരിയാണിക്ക് ഞങ്ങൾ എനിക്ക് മട്ടൻ ബിരിയാണി ലാസ്റ്റ് ചോയ്സാണ് അപ്പോൾ അതിൽ തന്നെ പല ചിക്കൻ ബിരിയാണി തന്നെ ദം ബിരിയാണിയുണ്ട് പൊരിച്ച് വെക്കുന്ന ബിരിയാണിയുണ്ട് പിന്നെ ഇത് ബീഫിലാണെങ്കിലും എല്ലാറ്റിലുമുണ്ട് അപ്പോൾ ആ ദമ്മിട്ട് വയ്ക്കുന്ന ബിരിയാണിയാണ് ഒന്നുക്കൂടി ഇഷ്ടം അത് മസാലയും റൈസൊക്കെ കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ചിക്കൻ ബിരിയാണി ഞങ്ങൾ ഏറ്റവും കോഴിക്കോട് റഹ്മത്ത് അവിടുന്നൊക്കെയാണ് കഴിക്കുക അവിടുത്തെ ബിരിയാണിയാണ് നമ്പർ വൺ ബിരിയാണി ഞങ്ങളവിടുന്നാണ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചിക്കൻ ബിരിയാണി ഏത് ബിരിയാണിയെങ്കിലും റഹ്മത്താണ് ഫസ്റ്റ് ചോയ്സ്